ഹലോ ഹലോ എൻ്റെ പേര് ജുനൈദ് എന്നാണ് ഞാൻ ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എനിക്ക് ഇരുപത് സെന്റെ സ്ഥലമുണ്ട് അപ്പോൾ അതിലേക്ക് എങ്ങനെ വീടിൻ്റെയും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടാണ് ഉദേശിക്കുന്നത് ഞാനൊരു ഡബിൾ സ്റ്റോറീഡ് വീടാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റൈൽസും കാര്യങ്ങളും പറഞ്ഞാലൊന്നു ഉപകാരമായിരിക്കും അങ്ങനെയാണോ ഓക്കേ അതെ എന്തയാലും എസ്തെറ്റിക്ക് മോഡലാണ് നമ്മൾ ഉദേശിക്കുന്നത് എന്നാലേ സ്ഥലം നമുക്ക് പാലക്കാട് ടൗണിന് അടുത്തായിട്ടാണ് ഉദേശിക്കുന്നത് അവിടെ നിങ്ങൾക്ക് വല്ല സ്ഥലങ്ങൾ ഉണ്ടോ ഒരുപാട് ടൗണിലേക്ക് വേണ്ട പക്ഷെ ടൗണിലേക്കുള്ള ആക്സസ് കൊറച്ചുംകൂടെ രീതിയിലാണ് വേണ്ടത് ആ അങ്ങനെ നോക്കാം കുഴപ്പമില്ല ഒരു ഇരുപത് സ്ക്യുയർ ഫീറ്റിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത് ശേഷം ഫ്രണ്ട് ഫ്രണ്ടും ബാക്കും പോർച്ചും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങൾക്കുമുള്ള സ്ഥലം ഗാർഡൻ ഗാർഡനുള്ളത് വേണം ഓക്കേ താങ്ക്യൂ നമുക്ക് താഴെ നാല് റൂം മുകലിൽ മൂന്ന് റൂമുമാണ് വേണ്ടത് ഒരു കിച്ചൻ ബാക്കി ഡീറ്റെയിൽസ് ഇതൊക്കെ ഒക്കെ പിന്നെ അറ്റാച്ചഡ് ബാത്റൂം വേണം ഞങ്ങൾ പുതിയ മോഡൽ ആണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ബജറ്റ് ഒരു പ്രശ്നമല്ല നമുക്ക് വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളുമെല്ലാം നമുക്ക് ചെയ്യുന്നത് ആ ഓക്കേ ഓക്കേ നേരിട്ട് കാണാം

ഞങ്ങൾക്കെപ്പോഴും ഫ്രീ ആണ് അതിൻ്റെ നോക്കിയിട്ട് വിളിച്ചാൽ മതിയാവും ആ ശരി